ഹലോ ഇത് ടു വീലർ റെൻറ്റ്ൽ കമ്പനി അല്ലെ ആ ഞാൻ കോയമ്പത്തൂർന്ന് വിളിക്കുന്നത് ആയിരുന്നു ഞാനീ പേര് അഭിജിത്ത്ന്നാണ് ഓക്കെ ഞാൻ നെക്സ്റ്റ് മന്ത് അതായത് നെക്സ്റ്റ് മന്ത് കേരളം മൊത്തമായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫസ്റ്റോടു കൂടി അപ്പോൾ നമ്മൾ കോയമ്പത്തൂർന്ന് ട്രെയിനാണ് വരുന്ന അപ്പം കോഴിക്കോട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടുന്ന് ടു വീലർസ് റെൻറ്റിനെടുത്തിട്ട് കറങ്ങാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഞങ്ങൾ ടോട്ടല് ഒരു എട്ട് മെംബേർസ് ഉണ്ട് അതേ ഞങ്ങൾ ഒരു എട്ട് മെംബേർസ് ആണുള്ളത് അപ്പമൊരു നാല് വണ്ടിയെങ്കിലും വേണ്ടി വരും

ആണല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ മനസ്സിലായി ഓക്കെ ആ ഓക്കെ നമുക്ക് മനസ്സിലായി നമ്മളിപ്പോൾ ഓൾ മോസ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് ഹിമാലയേലാണ് നാലെണ്ണം ഓക്കെ ഒക്കെ നമുക്ക് പഴയ മോഡല് മതി അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഓൾ മോസ്റ്റ് ഒരു നാല് വണ്ടിയാണ് വേണ്ടത് അപ്പം അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ എത്ര രൂപയാണ് പെർ ഡേ റെൻറ്റ് വരുന്നതെന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു മൂവായിരമാണല്ലേ അപ്പം നമുക്കെങ്ങനെയാണ് ട്വന്റി ഫോർ അവേഴ്സാണ് ചാർജ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർത്തേക്കാണോ ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളവിടുന്നു ഹെൽമെറ്റക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഒന്ന് ഉള്ളല്ലേ ഓക്കെ അഡിഷണൽ മേടിക്കണോല്ലേ ഓക്കെ പിന്നെ നിങ്ങൾ ഓക്കെ നിങ്ങളവിടെ തന്നെ ഓക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ പിന്നെങ്ങനെയാണ് അവിടുന്നെങ്ങനെയാണ് വണ്ടി എടുക്കുന്ന ടൈമില് പെട്രോള് എങ്ങനെയാണ് അത്രേ ഉണ്ടാവുള്ളൂല്ലേ ഒക്കെ കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് നിയറ് പമ്പെത്തുന്ന വരെയ്ക്ക് അത് നിക്കുവായിരിക്കുമല്ലേ ഓക്കെ ഉണ്ടായി ഉണ്ടാവു അല്ലെ ഓക്കെ അപ്പം നമുക്കത് ഒരു പ്രശ്നം അല്ല നമുക്കിപ്പോൾ ഓൾ മോസ്റ്റ് ഒരു വൺ മന്തിന് മേളിലേക്കെക്കെ ചിലപ്പോൾ ട്രിപ്പ് ഞങ്ങൾ ഇതാക്കുവായിരിക്കും എക്സ്പെക്ട് എന്താ പറയാ എക്സ്റ്റൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വണ്ടി അർജന്റ് അങ്ങനെ എന്തേലും ആവശ്യമൊക്കെ ഉണ്ടാവ്വോ അതോ നമ്മൾ കൊണ്ട് പോയിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കൊണ്ട് തന്നാൽ മതിയായിരിക്കുവോ ആ ഒക്കെ നമ്മുടെ ഡേറ്റ് കൺഫോം എത്ര ദിവസത്തേക്ക് വേണംന്ന് പറയണംല്ലേ ഓക്കെ നമുക്കപ്പോൾ എത്ര ദിവസത്തേക്ക് വേണമെന്ന് ആദ്യമേ പറയുകയാണെങ്കിൽ അത് കുഴപ്പമുണ്ടാവൂല്ല ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ ഞങ്ങളങ്ങനാണെങ്കിൽ വരുമ്പോൾ ഒരു ഇപ്പോൾ വൺ മന്തക്കെ വേണ്ടി വരൂന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് എങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് പ്ലാൻ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് റിട്ടേൺ നേരത്തെ തന്ന് കഴിഞ്ഞതിൻ്റെ ഫണ്ട് എക്സ് കുറച്ച് തരില്ലേ

ഓക്കെ ഓക്കെ അപ്പം ഞാനെന്തായാലും ഓക്കേ ആ വണ്ടി ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുവോള്ളുന്നക്കെ പറയല്ലേ ആ ഒക്കെ അപ്പം നമുക്കത് നേരിട്ട് സംസാരിക്കാം എന്തായാലും ഓക്കെ ഞാനപ്പോൾ എന്തായാലും ഡിസംബർ ഫസ്റ്റോടു കൂടിഎത്തുവൊള്ളൂ ഞാനപ്പോൾ നിങ്ങളാണ് വരുന്നതിൻ്റെ ഒരു വൺ വീക്ക് മുമ്പ് ഞാൻ ഒന്നൂടി കോൺടാക്റ്റ് ചെയ്തോളാം ഒക്കെ എന്നാൽ താങ്ക് യൂ കേട്ടോ